ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ബൈക്ക് എക്സ് പ്ലസാണ് ഞാൻ ഇതുപോലെ കുറെ ഓഫ് റോഡിങ്ങ് കാര്യങ്ങള് ഇതിനൊക്കെ തന്നെ ആയാലും ഞാൻ പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബൈക്ക് നമുക്ക് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത് നന്നായിട്ട് നമുക്ക് വലിയൊരു ഇതൊന്നും നമുക്ക് തോന്നില്ല നമുക്ക് ഓടിക്കാൻ ഭയങ്കര കണ്ഫോർട്ടബിളാണ് പിന്നെ ഈ ഓഫ് റോഡ് ചെയ്യുന്ന ഭൂരിഭാഗം പേരും ഈ ബൈക്കൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എക്സ് പ്ലസ് പോലുള്ള ബൈക്കൊക്കെ പിന്നെ അതായത് ഈ ഓഫ് റോഡിങ്ങെന്ന് പറയുമ്പം നമ്മള് വളരെയധികം ഭയങ്കര ഇതായിട്ടുള്ള വഴികളിലൂടെ ആയാലും ഇത് വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്കോടിച്ച് നമുക്ക് പോകാൻ പറ്റും ഈ മലേൻറ്റെ മേലേക്കായാലും നമുക്ക് ഭയങ്കര വളരെ സ്മൂത്തായിട്ട് തന്നെ പോകാൻ പറ്റും നമ്മളത്യാവശ്യം സ്കിൽ ഒക്കെയുള്ള മനുഷ്യനാണെങ്കിൽ പിന്നേ ഇതിൻ്റെ ടയറ് നല്ലൊരു എന്താ പറയുക അങ്ങനെ പെട്ടെന്ന് ഈ തെന്നി വഴുതി പോകുവോന്നും ഇല്ല ഒരു ഈ മല കയറുന്നത് കൊണ്ടൊക്കെ തന്നെ ഭയങ്കര ഗ്രിപ്പൊക്കെ ഉള്ളൊരു ടയറൊക്കെ തന്നെയാണ് അതങ്ങ് നിന്നിതായിക്കോളും അപ്പം ഞാൻ നോക്കിയിട്ട് ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് തന്നെയാണ്